ഹലോ ഹലോ എനിക്ക് വയനാട് മൊത്തമൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇവിടെ ടു വീലർ ബൈക്ക് റെൻ്റിന് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വിളിച്ചതായിരുന്നു അപ്പോൾ ഓരോ വണ്ടിക്കും എത്ര റേറ്റ് വരും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കറങ്ങാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ

ചെയ്യാൻ പറ്റും അല്ലേ എനിക്ക് ഒരു ഒരു മൂന്ന് മൂന്ന് വണ്ടി എന്തായാലും നമുക്ക് വേണം കാരണം എൻ്റെ ഒരു മൂന്ന് ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ അവർ ത തനിയെ തനിയെ ഓടിച്ചു പോവാൻ വേണ്ടിയിട്ടാണ് ആ അപ്പോൾ അവർക്ക് മൂന്നാൾക്കും സെപ്പറേറ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഒന്ന് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള വണ്ടികൾ വേണം അതെ ഓഫ് റോഡ് ടൈപ്പ് അങ്ങനത്തെ വെഹിക്കിൾസ് ആണ് ഞാൻ നോക്കുന്നത് അപ്പം ഒരു ഹിമാലയൻ പിന്നെ ആ ഉണ്ടല്ലേ ആ അങ്ങനെ ആണെങ്കിൽ അത് മതി ഇത് നമുക്ക് ഇപ്പോൾ അവിടെ ബുക്ക് ചെയ്യണോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ അവൈലബിൾ ആയിരിക്കുമല്ലേ ഇല്ലല്ലേ ആ ഞാൻ വിചാരിച്ചു ഇനി അവിടെ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് എല്ലാവരും വണ്ടി ഇപ്പോൾ ഒന്നാമതേ എല്ലാവരും റെൻ്റിനെടുത്തിട്ടാണ് ഓരോ സ്ഥലങ്ങൾ കറങ്ങാൻ പോകുന്നത് അപ്പോൾ വണ്ടികൾ ഇപ്പോൾ കുറവായിരിക്കും അല്ലേ അതാണ് ഞാൻ ചോദിച്ചത് പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ വണ്ടി ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു ഭയങ്കര പ്രശ്നമാണ് വയ്ക്കും അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നാൽ ഒരു മൂന്ന് വണ്ടി എന്തായാലും അവിടെ ഉണ്ടായാൽ മതി വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒന്നുമില്ല ആ ഞങ്ങളുടെ കാർ പിന്നെ അവിടെ എവിടെയെങ്കിലും വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ആക്കിത്തരണം നമ്മൾ കാർ കൊണ്ടാണ് വരുന്നത് സൈറ്റിലൊരു യാത്ര പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാർ അവിടെ വയ്ക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടാവില്ലേ സ്ഥലമുണ്ടാവുമല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ വരുമ്പോൾ ഞാൻ കോൾ കോൺടാക്റ്റ് ചെയ്താൽ മതിയോ

ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ വരുമ്പോൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ അഡ്വാൻസ് പെയ്മെൻ്റ് അങ്ങനെ എന്തെങ്കിലും വേണോ വേണ്ടല്ലോ ആ ആ എന്തൊക്കെയാണ് വേണ്ടത്

ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഞാൻ വരുമ്പോൾ കോൺടാക്റ്റ് ചെയ്യാം എന്നാൽ